വാണിജ്യവും വ്യാപാരം ഉൾപ്പെടെ ഉള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ ഭാഷയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട് തന്നെയാണ് നമ്മള് പ്രത്യേകിച്ച് ഈ ഇത് കൈകാര്യം ചെയ്യും കയറ്റുമതി ചെയ്യും ചെയ്യുന്ന വ്യാപാരമാണ് ഈ സാധനങ്ങളിൽ നമ്മുടേതായ മലയാള ഭാഷയിലുള്ള പരസ്യങ്ങളും ധാരാളമിന്നുണ്ട് ഒരു സ്വർണ വ്യാപാരമായാൽ പോലും അതിന് ഒരു അംബാസഡര് കാണും അവര് ഉപയോഗിക്കുന്നത് നമ്മളെ മലയാള ഭാഷ ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ് അവര് കൊടുക്കുന്നത് മലയാള ഭാഷയിൽ തന്നെ ഉദാഹരണത്തിന് മണപ്പുറം ഫൈനാൻസ് കണ്ടിട്ടുണ്ട് അതില് മോഹൻലാല് പറയുന്ന ഒരു പരസ്യമുണ്ട് അത് നമ്മുടെ മലയാള ഭാഷയില് തന്നെയാണ് വീട്ടിൽ സ്വർണം വച്ചിട്ടെന്തിന് നാടുമുഴുവനും കിടന്ന് അലയുന്നേന്നും പറഞ്ഞിട്ട്